പരമ്പരാഗത അവസരങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ ആൾക്കാർ തികച്ചും വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ഓണം ആചരിച്ചു വരുമ്പോഴും പലതരത്തിലുള്ള പരമ്പരാഗത നൃത്തങ്ങളും നൃത്ത രീതികളും അഭ്യസിച്ചു വരാറുണ്ട് ഉദാഹരണത്തിന് തിരുവാതിര പുലിക്കളി പോലുള്ള പുലിക്കളി പോലുള്ള കലകൾ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ സമയത്തുതന്നെ ഇപ്പോൾ തിരുവാതിര കളിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ സ് നേര്യത് സാരിയും അതുപോലതന്നെ ഇളക്കത്താലി കാശിമാല മുതലായ ആട ആഭരണങ്ങൾ ധരിച്ചാണ് തിരുവാതിരക്കളിയിൽ ഏർപ്പെടുന്നത് പോരാതെ കേരത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന കഥകളി തെയ്യം മുതലായ കലാ രൂപങ്ങൾക്ക് പോലും വ്യത്യസ്ത തരത്തിലുള്ള ചമയവും വേ വസ്ത്രലങ്കാര രീതിയുമൊക്കെയാണ് കണ്ടുവരുന്നത് ചമയത്തിൽ പോലും വളരെ വ്യത്യസ്തതകളാണ് ഈ ഉദാഹരണത്തിന് ഓരോ വേഷത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിക്ക് കഥകളിയിൽ ആണെങ്കില് കത്തി കരി മുതലായ ഓരോ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലാണ് ആൾക്കാര് വേഷങ്ങൾ ധരിക്കുന്നത് അവിടെ ഉ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും അപ്പോൾ പരമ്പരാഗതമായ വസ്ത്ര നൃത്തങ്ങളെയും അതുപോലെ തന്നെ ഈ ഒരു കലാരീതികളെയൊക്കെ വ്യത്യസ്തമാക്കുന്നതും ഈ വസ്ത്ര രീതികളും ആട ആഭരണങ്ങളും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു